വെള്ളം ആവശ്യമുള്ള കാര്യങ്ങൾ എന്നുപറയുന്നത് പല്ല് തേക്കാൻ കുളിക്കാൻ ചായ കുടിക്കണമെങ്കിൽ വെള്ളം വേണം പിന്നേ കഞ്ഞി വെക്കണമെങ്കിൽ കറി വെക്കണമെങ്കിൽ പാത്രം കഴുകണമെങ്കിൽ അലക്കണമെങ്കിൽ പിന്നെ ചോറ് തിന്ന് കഴിഞ്ഞ് കൈ കഴുകണമെങ്കിൽ വെള്ളം കുടിക്കണം